ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെക്കുറിച്ചൊന്നും എനിക്ക് വല്യ പറയാൻ വല്യ താല്പര്യമൊന്നുമില്ല കാരണം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ കാര്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ തിരഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് കാരണം എന്തൊക്കെയാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ അതായത് അവർ പാർട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പിന്നെ അവർ ജയിച്ചു കഴിയുകയാണെങ്കിൽ ഇപ്പോൾ ജയിക്കുന്നതിനു മുൻപേ നമ്മുടെ വീടുകളിലൊക്കെ വന്നിട്ടവരിങ്ങനെ പറയും പിന്നെന്താ നിങ്ങൾ എന്നെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തുതരാം ഇത് ചെയ്തുതരാം വീടുകെട്ടിത്തരാം നിങ്ങൾക്ക് വീടില്ലെങ്കിൽ വീട് കെട്ടിത്തരാം മേൽക്കൂര ഇല്ലെങ്കിൽ മേൽക്കൂര കെട്ടിത്തരാം ഇപ്പോൾ ജല സൗകര്യങ്ങള് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കിണർ കുഴിച്ച് തരാം അങ്ങനെയുള്ള പല പല വാഗ്ദാനങ്ങളും നൽകിയിട്ടാണ് നമ്മൾ അതായത് നമ്മളെ മയക്കി എടുത്തിട്ടായിരിക്കും അവർ നമ്മളതിൽ വിശ്വസിച്ചു പോവും ഇവര് ജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് നമ്മളുദ്ദേശിക്കുന്ന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ഇവരെത്തന്നെ ജയിപ്പിക്കാൻ ശ്രമിക്കണം എന്നുള്ളൊരിതിൽ നമ്മളും ആവും അപ്പോഴെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ടെന്നു വെച്ചിട്ടുണ്ടങ്കിൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ അതൊക്കെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ഇതുതന്നെയാണ് അപ്പോൾ പിന്നെ അപ്പോഴെന്നു വെച്ചിട്ടുണ്ടങ്കിൽ നമുക്ക് വേണ്ട സഹായങ്ങളൊന്നും കിട്ടുന്നില്ല അതായത് അവരു ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല ആ ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ കൂടുതലായിട്ടും വരുന്നത്